ഞാൻ നൃത്ത പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് കാരണം എന്നു വെച്ചുകഴിഞ്ഞാൽ നാലാം ക്ലാസിൽ പഠിക്കുമ്പോൾ ലജ്ജാവതി എന്നു പറഞ്ഞൊരു പാട്ടിന് ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട് പിന്നെ വന്ദേമാതരം എന്നു പറഞ്ഞിട്ട് ഒരു പാട്ടിന് ഡാൻസ് കളിച്ചിട്ടുണ്ട് ഇവിടുന്നാണെൻ്റെ ഡാൻസിന്റെ തുടക്കം പിന്നെ ഞാൻ അങ്ങനെ എന്താണ് പറയുക നൃത്തം അങ്ങനെ കളിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കളിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കൂട്ടുകാരെല്ലാം നിർബന്ധിച്ചതുകൊണ്ട് ഒരു ഡാൻ എന്താണ് പറയുക ഡാൻസ് കളിച്ചിട്ടുണ്ട് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കും പക്ഷേ എന്താണ് പറയുക കുറേ കളിക്കാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരം അതിനനുസരിച്ച് വഴങ്ങുന്നില്ല അപ്പോൾ അത് കുറേ പ്രശ്നങ്ങളായിട്ടുണ്ട് ഞാൻ പിന്നെ വേറെ ഇതിലൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒന്നിനുമങ്ങോട്ട് സാധിച്ചിട്ടില്ല പിന്നെ വേറെ അങ്ങനെ പിന്നെ ഞാൻ പഠിക്കാൻ പോകാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ ഡാൻസ് ഒന്നുമങ്ങനെ കളിച്ചിട്ടില്ല ഇതൊക്കെയാണ് എൻ്റെ ഡാൻസും അങ്ങനെയൊക്കെ പറയാം